ഹലോ ഇത് ഊബറിന്റെ ഓഫീസ് ആണോ ആ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് വരെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ട് രാവിലെ എട്ടു മണിയാവുമ്പോഴേക്കും അയക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ വണ്ടി വന്നിരുന്നു ഇതിപ്പോൾ ഇവിടെനിന്ന് അവിടെ എത്തി കഴിയുമ്പോൾ ഡ്രൈവർ എന്നോട് നിങ്ങൾ പറഞ്ഞ പെയ്മെൻ്റിലും കൂടുതലാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപയായിരുന്നു എന്നോട് പറഞ്ഞത് ഇപ്പോൾ പുള്ളി പറയുന്നത് രണ്ടായിരം രൂപ വേണം എന്നാണ് അല്ല ഇത് നമ്മൾ കൂലി പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടാണല്ലോ വണ്ടി ബുക്ക് ചെയ്തത് ഇപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം പുള്ളി എന്നോട് പറയുന്നത് രണ്ടായിരം രൂപ വേണം എന്നാണ് അപ്പോൾ ഞാൻ എന്തു ചെയ്യണം ഒന്നുകിൽ നിങ്ങൾ പറയണം ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്നിപ്പൊപ്പോൾ പേയ്മെൻ്റ് ചെയ്യും എന്നിട്ട് എനിക്ക് കംപ്ലയിൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്താണ് ചെയ്യേണ്ടതെന്ന് വച്ചാൽ നിങ്ങൾ പറയുക ഓ ഓക്കെ പറഞ്ഞ പെയ്മെൻ്റ് തന്നെ ചെയ്താൽ മതിയെന്നാണോ ഓക്കെ ഓക്കെ ആ ശരി